കാളവണ്ടി ഓട്ടം ആട് കോഴിപോര് തുടങ്ങിയ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹിക പരിപാടികളിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല അവ നേരിട്ട് കണ്ടിട്ടുമില്ല പക്ഷേ ടി വിയിൽ ഒക്കെ കണ്ടത് വെച്ച് പറയുവാണെങ്കിൽ മനുഷ്യൻ മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവയെ അവയെ പരിശീലിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത് അപ്പം മനുഷ്യൻ്റെ അവയെ പരിശീലിപ്പിച്ചെടുക്കാനുള്ള മനുഷ്യൻ്റെ ഒരു എഫോർട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കരം തന്നെയാണ് പക്ഷേ കാളവണ്ടി ഓട്ടം ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് അവ മൃഗങ്ങളെ എന്തുമാത്രം പരിശീ ബുദ്ധിമുട്ടിപ്പിക്കുന്നു അതായത് ഇപ്പോൾ കാളവണ്ടി ഓട്ടത്തിൽ ആണെങ്കിൽ സ്പീഡിൽ ഓടാൻ വേണ്ടിയിട്ട് അവയെ ചാട്ടവാർ കൊണ്ട് ഒത്തിരി അടിക്കുന്നുണ്ട് അവർക്ക് അറിയില്ല ഇത് മത്സരത്തിൽ ജയിക്കാൻ ആണെന്നുള്ള ഒരു വകതിരിവും മൃഗങ്ങൾക്കില്ലല്ലോ അവർ ആ വേദനയുടെ ആഴം കൊണ്ട് ഓടുന്നതാണ് അത് മനുഷ്യർ ഒന്ന് ജയിച്ചുകിട്ടാൻ വേണ്ടിയിട്ടാണ് മൃഗങ്ങൾ എന്തുമാത്രം വേദനിപ്പിക്കുന്നത് കോഴിപ്പോര് കോഴിപ്പോര് കോഴികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊക്കുന്നത് സിനിമയിൽ കണ്ടിട്ടുണ്ട് കൊത്തുന്നത് കണ്ടാൽ തന്നെ നമുക്ക് പേടി തോന്നും ഒരു കോഴിനെയും കൊണ്ട് കൊത്തിച്ച ഒരു ആൾ മരിക്കുന്ന ഒരു സാഹചര്യം റ്റ് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് എങ്ങനെ എന്നൊന്നും അറിയില്ല എന്നാലും ഇത് ഈ പരിപാടിയോട് അത്ര വിയോജിപ്പുള്ള ആളാണ് വെറുതെ മൃഗങ്ങളെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും വർദ്ധിപ്പിച്ച് വേദനിപ്പിച്ചിട്ട് മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്